മത്സ്യബന്ധനം എന്നു പറയുമ്പം അത് ഒരു വളരെ ഇഷ്ടമുള്ള ഒരു തൊഴിലാണ് അത് വളരെ രസകരമായി രസകരമാണ് അത് അതിനെ അതിന് അതിന് ലഭിക്കുന്ന ആദായത്തേക്കാൾ കൂടുതൽ ഒരു ഹരമാണ് ജീവിതത്തിൽ ഒരുപാട് സന്തോഷമൊക്കെ ലഭിക്കുന്നു ഇത് ഒരു ഇത് ഒരു വലിയ താല്പര്യമുള്ള ഒരു കലയായിട്ട് നാം കൊണ്ട് നടക്കുന്നു കരയിലുള്ള ജോലി പോലെ അല്ല ഇത് കരയിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് അതിന് കുറേ സന്തോഷങ്ങൾ ജനിപ്പിക്കുന്നു ഇപ്പം കൗതുകരമായ പല കാഴ്ചകളും പല സന്തോഷങ്ങളും എന്നുള്ളിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു വിവിധ സാഹചര്യങ്ങളെ എല്ലാം ആതിജീവിച്ചു കൊണ്ട് അത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു മത്സ്യബന്ധനത്തിലൂടെ ലഭിക്കുന്ന വരുമാനത്തെക്കാൾ ഉപരി അതിനാണ് കൂടുതൽ സന്തോഷം ജനിപ്പിക്കുന്നു പല പല പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നു ഇതിനെല്ലാം ഉപരിയായിട്ട് ഇത് ഒരു തൊഴിലായിട്ട് സീകരിക്കാൻ സീകരിക്കുന്നു ഇതിനെല്ലാം ഉപരിയായി പലപ്പോഴും അതിനെ രസകരമാക്കുന്ന വിവിധ സാഹചര്യങ്ങളും സന്തോഷത്തിലെ നേരിടാന് സാധിക്കുന്നു ഇതിനെല്ലാം വളരെയേറെ താല്പര്യം ജനിപ്പിക്കുന്നു